പരമ്പരാഗത അവസരങ്ങളിൽ നൃത്തം ചെയ്യുമ്പോൾ ആള്കൾ പട്ട് സാരി വസ്ത്രം ധരിച്ചിട്ടാണ് നൃത്തം ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഈയിടെ ആയിട്ടാണ് ഓരോ നൃത്തത്തിനും അതിൻറ്റേതായ ഡ്രെസ്സ്കൾ വന്ന് തുടങ്ങീത് ഇപ്പോൾ ഭരനാട്ട്യത്തിൽ ഭരതനാട്ട്യത്തിനാച്ച ഭരതനാട്ട്യത്തിൻ്റെ ഡ്രെസ്സ് മോഹിനിയാട്ടത്തിനാച്ച മോഹനിയാട്ടത്തിൻ്റെ ഡ്രെസ്സ് പിന്നെ കുച്ചിപ്പുടിക്കാച്ച കുച്ചിപ്പുടീടെ ഡ്രെസ്സ് ഇങ്ങനെ ഓരോന്നിനും ഓരോ ഡ്രെസ്സ് വരാൻ തുടങ്ങീത് ഈ അടുത്താണ് അതിന് മുന്നേ വരേം എല്ലാ സ്ത്രീകളാണെങ്കിലും ഏതൊരു ആൾ ആള്കളാണങ്കിലും ധരിച്ചിരുന്നത് പട്ട് സാരിയാണ് പട്ട് സാരിക്ക് ഇന്ന കളറ് എന്നൊന്ന് ഇല്ലായിരുന്നുന്നെങ്കിലും അവരുപയോഗിച്ചിരുന്നത് ഡാർക്ക് കളേഴ്സുള്ള പട്ട് സാരിയാണ് അവരുടുത്തിരുന്നത് അത് ഉടുക്കണ ശൈലി വേറെ ആയിരുന്നു സാധാരണ നമ്മളൊരു സാരിയുടുക്കണ പോലെയല്ല അവർ സാരി ഈ ഡാൻസ്സ് കളിക്കുമ്പം സാരി ഉടുത്തിരുന്നത് അവർ കാലിന് മുകളിൽ പൊക്കി ക്കെട്ടി അരയിലേക്ക് ചുറ്റി കെട്ടിയൊക്കെയാണ് സാരിയുടുത്തിരുന്നത് പിന്നെ ചിലങ്ക കെട്ടീട്ട് കൂടിയാണ് അവർ നൃത്തം കളിച്ചിരുന്നത് പിന്നെ ആഭരണങ്ങളിലേക്ക് വരുമ്പോൾ തലേനിന്ന് തുടങ്ങയാണെങ്കിൽ തലേടെ മുകളിലായിട്ട് സൂര്യനും ചന്ദ്രനും അതാത് സ്ഥാനത്ത് വെയ്ക്കുകയും അത് കഴിഞ്ഞ് കം ചെവിയിലേക്ക് വരുമ്പോൾ ചെവീൽ ജിമ്ക്ക കമ്മലും പിന്നെ കമ്മൽ മാട്ടീം കൂടി യോജിച്ചിട്ടുള്ള ഒരു കമ്മലാണ് ഉപയഗിക്കാറ് പിന്നെ മാലകൾ പലതരം ഉപയഗിക്കാറുണ്ട് കാശ്ശ്മാല പാലയ്ക്കാമാല തിളക്കത്താലി നെക്ളസ് അങ്ങനെ പലവിധം മാലകളുണ്ട് ഇപ്പോൾ ഈ മാങ്ങാ മാല തിളക്കത്താലിയൊക്കെ കൂട്തലും മോഹനിയാട്ടത്തിനുപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ട് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് അരയിലേക്ക് അരയുടെ ചു റ്റും ചുറ്റും യോജിച്ച് നിൽക്കുന്ന ഒരപ്പട്ട നമ്മൾ കെട്ടാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തലേല് നെറ്റിച്ചു ട്ടീം വെയ്ക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാളിൽ ചിലങ്ക കെട്ടും ചിലങ്ക കെട്ടീട്ട് കൂടിയാണ് നമ്മൾ നൃത്തം കളിക്കാറ് ചിലർ മുടിവാറ് വെച്ചിട്ടും മുടി പിന്നിയിട്കയും ചെയ്യാറുണ്ട്